എൻ്റെ ഗ്രാമത്തിൽ എന്തൊക്കെ വ്യവസായങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട് കൃഷിയന്നെ ഒരു വ്യവസായമാണല്ലോ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയാകുമ്പോൾ നെൽക്കൃഷി ഉണ്ട് വാഴക്കൃഷി ഉണ്ട് പിന്നെ അതുപോലെ പച്ചക്കറി കൃഷികൾ തക്കാളി ഉള്ളി പിന്നെ വഴുതന വെണ്ടക്ക പയറ് പയറ് കൃഷി ഒക്കെ നല്ലോണം ഉണ്ട് പിന്നെ ഇപ്പ്രാവശ്യം ഇഞ്ചി ഇഞ്ചിക്കൊക്കെ ഇപ്പ്രാവശ്യം നല്ല വില കൂടുതലാണ് പിന്നെ അതുപോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്ന എന്താ പറയാ കുരുമുളക് കൃഷി ഉണ്ട് കാപ്പി കൃഷി ഉണ്ട് അങ്ങനെ ഒരുപാട് വ്യവസായങ്ങളുണ്ട് കാരണം അവരൊക്കെ ആ വ്യവസായികളൊക്കെ ഉള്ളോണ്ടാണല്ലോ നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് അവരാണല്ലോ നമുക്ക് നമ്മുടെ ഭക്ഷണം എല്ലാം കറക്റ്റ് സമയത്ത് എത്തിക്കുന്നത് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വ്യവസായത്തിലേക്ക് ഒക്കെ ആൾക്കാർ ഇറങ്ങുന്നത് വളരെ കുറവാണ് എല്ലാവരും അതായത് ഗവൺമെൻറ് ജോലി പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ജോബ് അങ്ങനെയൊക്കെ നോക്കിപോകുന്ന ആൾക്കാരാണ് ഒരുപാട് ഉള്ളത് അപ്പോൾ കൃഷിക്കാരെന്നൊക്കെ പറയണമെങ്കിൽ ഇപ്പോൾ പഴയ ആൾക്കാർ മാത്രമേ ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്നുള്ളു അപ്പം നമ്മളിപ്പോൾ ഭക്ഷണത്തിനും ഇപ്പോൾ അന്യസംസ്ഥാങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പോൾ വ്യവസായം ചെയ്യുവാണെങ്കിൽ നമുക്കത്രയും നല്ലത് പക്ഷേ വ്യവസായം ചെയ്യുന്നതൊക്കെ ഒരു കുറച്ചിൽ പോലെയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഇപ്പോൾ ആരും വ്യവസായം ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്നില്ല അപ്പം നമ്മുടെ പിന്നെ ഗ്രാമത്തിലൊക്കെ കൊ അത്യാവശ്യം വ്യവസായങ്ങളൊക്കെ നടക്കുന്നുണ്ട്